ഹലോ ആ ആ ഞങ്ങളുടെയൊരു പുതിയ സ്വാശ്രയ സംഘം രൂപീകരിക്കുന്നുണ്ട് അതിന് താങ്കളെക്കൂടി ചേർക്കാനാഗ്രഹിക്കുകയാണ് എങ്ങനെയുണ്ട് അതിനോട് താൽപ്പര്യമുണ്ടോ അറിയണം ആ അപ്പം നമ്മളിത്രയേയുള്ളു ആഴ്ച്ചയിലൊരു ഇരുന്നൂറ് രൂപ വെച്ച് എല്ലാ ആഴ്ച്ചയിലും അടയ്ക്കണം അതിനു പുറമേ നമ്മൾ സ്പെഷ്യലായിട്ടെന്തെങ്കിലും വേണമെങ്കിലങ്ങനെ പൈസയോടു കൂടിയതടച്ചാൽ അതൊരു ഫണ്ടായിട്ട് വേറേ കിടക്കും വല്ല അത്യാവശ്യം ഉത്സവങ്ങളൊക്കെ വരുമ്പോഴേ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരുമ്പോൾ അതിനു വേറെ ഫണ്ടുണ്ട് ഇതിനു പുറമേ ഞങ്ങൾ ചിട്ടി നടത്തുന്നുണ്ട് ചിട്ടി ചേരാൻ താൽപ്പര്യമുണ്ടെങ്കിലതിലും ചേരാം വലിയ എമൗണ്ടൊന്നുമില്ല മാസം ഓരോ മാസമുള്ള കളക്ഷനാണ് ചിട്ടിയുടേത് ഒരു ലക്ഷം തൊട്ട് മേലോട്ടുണ്ട് ഓക്കേ ആ ഇതെല്ലാം താൽപ്പര്യമുണ്ടോ താങ്കളുടെ വിവരങ്ങളെല്ലാമെഴുതി കേട്ടോ ഒക്കെ നമ്മുടെ നമുക്കപ്പോൾ സാമ്പത്തിക ആവശ്യം വന്നാലും ആ പെട്ടെന്നു നമുക്ക് സാമ്പത്തികാവശ്യം വന്നാൽ നേരിടാം ഉം കേട്ടോ അതിന് വേണ്ടാരോടും അരികച്ചെന്ന് കൈ കൈ നീട്ടണ്ട അല്ലാതെ തന്നെ നമുക്കീ സംഘടനയെന്നു അതിനുള്ള പൈസ തരും അതു പോലെ നമ്മൾ ഞങ്ങളിവിടെ ഇൻഷുറൻസ് കവർ കൊടുക്കുന്നുണ്ട് രോഗങ്ങൾക്കൊക്കെ കവർ കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒത്തിരി ആനുകൂല്യം നമുക്ക് കിട്ടും അതു കൊണ്ടാണിതിൽ ചേരാൻ പറഞ്ഞത് ഓക്കെ ആ ആ ആ അതു തന്നെ ആ ഞങ്ങൾ ഏറ്റവും ഇതിൽ പ്രവർത്തിക്കുന്നതിലേറ്റവും മെച്ചപ്പെട്ടയൊരു സംഘടനയാണ് ആ ഞങ്ങളുടേത് എല്ലാവരുമിതിനെ അഭിനന്ദിക്കുന്നൊരു സംഘടനയായതു കൊണ്ട് ഇതിനകത്ത് ചേരാനാളുകളൊക്കെ ഒത്തിരിപ്പേർ നിൽപ്പുണ്ട് പക്ഷേ ഒത്തിരിപ്പേരെയെടുക്കാൻ പറ്റില്ല ഇരുപത് പേരേ പറ്റത്തുള്ളു അതു കൊണ്ടാണ് അതു കൊണ്ടാണ് താങ്കളെക്കൂടി ചേർക്കാൻ ചേരുന്നോ അതോ ഞങ്ങൾ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ടിവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പത്തു പതിനഞ്ച് കൊല്ലമായി അപ്പം എല്ലാവരുടെയും അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഇതിൽ ചേരുകയെന്നു വെച്ചല്ലോ ഓക്കെ ആ ഓക്കെ അപ്പം അടുത്ത ആഴ്ച്ചയിൽത്തന്നെ നമുക്ക് തുടങ്ങാം ഇതിനുള്ള മെമ്പറായിട്ട് കോപ്പി ഓക്കെ ഒന്നുമില്ല ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നുമിതിനകത്തില്ല ഓക്കെ ആ താങ്കളുടെ സാമ്പത്തികം വെച്ചെല്ലാഴ്ച്ചയിലും തരാൻ പറ്റുന്നുണ്ടല്ലോ ഉണ്ട് ആ വരുന്നുണ്ടെങ്കിൽ കൊണ്ടുവാൻ പറ്റും ഓക്കെ ശരി ആ പറഞ്ഞോ പറഞ്ഞോ ആ എന്നാൽ പറഞ്ഞോ ബേബിച്ചാ

എല്ലാ ആഴ്ച്ചയിലാണ് ആഴ്ച്ചയിലാണ് നമ്മൾ പോകുന്നു എല്ലാ ഞായറാഴ്ച്ചയും വൈകിയിട്ടേഴ് മണിക്ക് വന്നില്ലേൽ ചെറിയൊരു ഫൈൻ തരണമെന്നേയുള്ളു ഒരിരുപത് രൂപ ഒരു ദിവസം വന്നില്ലെങ്കിൽ ഫൈനുണ്ട് ആ അങ്ങനെ ഒരു മൂന്ന് തവണയെങ്കിലും മൂന്ന് തവണ അട് അടുപ്പിച്ച് മുടക്കിയാൽ ഏതാണ്ട് പിന്നെ നിശ്ചയമില്ല കാരണം ഇതൊക്കെ ഉണ്ട് ആ ഓക്കെ ഇതിനകത്ത് ഇരുപത് പേര് ഇരുപത് പേര് ഇല്ലില്ല നമ്മളൊരു യൂണിറ്റിനിരുപത് പേരേ അവരനുവദിക്കുന്നുള്ളു അതു കൊണ്ടാണ് ഒരു യൂണിറ്റ് ആ അതെ ആ ഓക്കെ ശരി ആ